ഹലോ കേള്ക്കാമോ എന്തായിരുന്നു ആ അതെയല്ലോ പറഞ്ഞുകൊള്ളൂ ഇപ്പോള് ഇന്ന് ഇന്ന് ലോഡിറക്കിയതില് ഇപ്പോള് നമുക്ക് ഓറഞ്ച് മുന്തിരി ആപ്പിള് ഇപ്പം സീസണായതുകൊണ്ട് ചക്ക ഏത്തയ്ക്കാപ്പഴം പിന്നെ നെല്ലിക്കാ അങ്ങനെ കുറേ മുസംബി അങ്ങനെ കുറേ ഐറ്റംസുണ്ട് എല്ലാ ഐറ്റംസുമുണ്ട് അത്യാവശ്യം ഇന്നിറക്കിയതായിരുന്നു ആ

നെല്ലിക്ക ഇപ്പോള് അറുപത് ആ ചക്കയ്ക്ക് ഇപ്പം എൺപത് രൂപയാണ് കിലോ

ഏത്തക്കയ്ക്ക് ഇപ്പോള് റേറ്റ് വരുന്നത് എഴുപത്തിയഞ്ച് ആ ആ ഓർഡര് തരാനായിരുന്നോ അതോ ആ ഉണ്ട് നമുക്ക് ഹോം ഡെലിവറിയുണ്ട് ഹോം ഡെലിവറിയുണ്ട് അധികം എടുക്കുന്നതിന് അനുസരിച്ചാണെങ്കില് റേറ്റ് കുറവുമായിരിക്കും ഡെലിവറിയുടെ കാശും കുറവായിരിക്കും ആ ഗൂഗിൾ പേയുണ്ട് ഇപ്പോള് അവിടെ കൊണ്ടുത്തരുന്ന ആളുടെ കയ്യില് പേയ്മെൻറ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പം സ്ഥലം എവിടെയായിരുന്നു എവിടെയായിരുന്നു സ്ഥലം റോഡല്ലേ ആ അവിടംവരെയൊക്കെ ചെയ്യുന്നതാണ് കുഴപ്പമില്ല നമുക്ക് ആ ഇല്ലില്ല കുഴപ്പമില്ലായിരുന്നു അതെയതെയതെ വണ്ടി നമുക്ക് വണ്ടിയുണ്ട് ആ ഷോപ്പാണോ അതോ വീട്ടിലേക്കാണോ എങ്ങനെയായിരുന്നു ഷോപ്പിലേക്കാണോ ഫങ്ങ്ഷന് വേണ്ടിയാണ് ആ അത് കുഴപ്പമില്ല നമ്മള് എത്തിച്ചുതരുന്നതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതന്നാല് മതി ഇത് ഫ്രഷാണ് നമ്മള് ഹോൾസെയില് കടയും റീടൈല് കടയും കൂടെയാണ് ഇപ്പോള് നമുക്ക് മറ്റുള്ള കടയിലേക്ക് നമ്മള് സെല് ചെയ്യുന്നുമുണ്ട് അല്ലാതെ ആൾക്കാര് വന്ന് അപ്പപ്പോള് തന്നെ നമ്മള് രാവിലെ വന്നിറക്കുന്നതില് ഇപ്പോള് ഇന്ന് വന്നിരിക്കുന്ന ലോഡ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നതാണ് വൈകിട്ടത്തേക്കാവുമ്പോഴേക്കും നമ്മള് ഹോൾസേയില് കടയുടെ മെയിന് ഉദ്ദേശമെന്ന് പറഞ്ഞാല് വേറെ കടകളില് നിന്നുള്ള ആൾക്കാര് നമ്മുടെ അടുത്തുനിന്നാണ് വാങ്ങുന്നത് ആ അതെയതെയതെ ഇത് ഇല്ലില്ലില്ല ഫങ്ങ്ഷന് എന്നായിരുന്നു അടുത്തയാഴ്ച ആ അതിപ്പോള് കുഴപ്പമില്ല ഇപ്പം നമ്മള് ഇന്നത്തെ സാധനം നമ്മള് തരില്ല നിങ്ങൾക്ക് ഓഡര് ചെയ്ത് നാളെ വരുത്തിക്കുന്ന സാധനമേ കൊണ്ടുവരികയുള്ളൂ ആ ഫ്രെഷായിട്ടുള്ള സാധനം എങ്ങനെയായിരുന്നു ലൂസായിട്ടാണെങ്കില് നമുക്ക് ഓറഞ്ചും മുന്തിരിയും എടുക്കാം ഓക്കെ ഓക്കെ കുറച്ച് ബൾക്കിയാക്കി ബൾക്കിയാക്കി എടുക്കുകയാണെങ്കില് നമ്മള് ഹോൾസെയില് ഹോൾസെയില് റേറ്റില് കുറച്ച് തരുന്നതായിരിക്കും ഓ അങ്ങനെയാണെങ്കില് സ്ഥലവും ഡീറ്റേൽസും എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞാല് മതിയായിരുന്നു ആ ഡീഗളക്കൊളുവാട് ആ ഓക്കെ വാട്സപ്പില് ചെയ്താല് മതി ഈ നമ്പറില് തന്നെ കോൺടാക്ട് ചെയ്താല് പോരെ ആ എല്ലാ സാധനങ്ങള് എന്തൊക്കെ വേണമെന്നൊന്ന് പറയാമോ ആ എന്ത് ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് അതുംകൂടെ നമുക്ക് വാട്സപ്പില് മെസ്സേജ് ചെയ്തിട്ടാല് മതി എന്തൊക്കെ ഡീറ്റെയിൽസാണെന്ന് പേയ്മെൻ്റ് എങ്ങനെയായിരുന്നു ഇപ്പോള് ചെയ്യുകയാണോ അതോ നാളെ ആളവിടെ എത്തുമ്പോഴാണോ ആ എന്നാല് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കില് ഈ നമ്പറിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്തേക്കാം അല്ലെങ്കില് നമ്മളെ ആണെങ്കിലും വേറെ സാധനങ്ങള് വേണമെങ്കില് കോൺടാക്ട് ചെയ്താല് മതി നാളെ എപ്പോഴത്തേക്ക് വേണം വൈകിട്ടത്തേക്ക് മതിയില്ലേ അതോ രാവിലത്തേക്ക് വേണമോ ആ എത്ര മണിയാകുമ്പോഴത്തേക്ക് വേണം ആ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കില് ഇതിലേക്ക് കോൺടാക്ട് ചെയ്താല് മതി നാല് മണിക്കുള്ളില് സെറ്റ് ചെയ്തേക്കാം കൊണ്ടുവന്നുതന്നേക്കാം ആ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് ഇതിലേക്ക് വിളിച്ചാല് മതി നാല് മണിക്കുള്ളില് ഡെലിവറി ചെയ്തതിൻ്റെ ഫോട്ടേയും നമ്മുടെ ബില്ലും ഇട്ടുതന്നേക്കാം ആ ഓക്കെ എന്നാല് എന്നാല് ഓക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കില് ഇതില് വിളിച്ചാല് മതി ഓക്കെ പിന്നെ ഇപ്പോള് ഇത് ക്യാൻസലാവില്ലല്ലോ ഉറപ്പല്ലേ ആ ഓക്കെ എന്നാല് അതവിടെ ആളെത്തുമ്പോള് വിളിച്ചുകൊള്ളും എങ്കില് ആ ഓക്കെ എന്നാല് ഓക്കെ